ഹലോ ഊബറല്ലേ ആ ചേട്ടാ ഞാൻ ഇന്നലെ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് കോയമ്പത്തൂർ പോകാൻ വേണ്ടിയിട്ട് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ആ ആ അതെ അതെ ഇന്നലെ വൈകിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ബുക്ക് ചെയ്തിട്ട് ഒരു അഡ്വാൻസായിട്ട് ഒരു അയ്യായിരം രൂപ ഞാനിന്നലെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതേ അതേ അതിന്നലെ ഇന്നലെ വൈകിട്ട് ബുക്ക് ചെയ്ത ആളാണ് ആളാണ് ചേട്ടാ എനിക്കിന്ന് നാളെയാണ് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നാളെ ഇപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം എനിക്ക് നാളെ വേറൊരു പരിപാടിയുണ്ടേ അതെ അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു പരിപാടിയാണ് വൈഫിൻ്റെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളായിട്ട് പോകേണ്ടൊരു പരിപാടിയുണ്ട് അപ്പോൾ നമ്മൾക്കത് ആ പരിപാടി നമ്മളൊന്ന് എക്സ്റ്റൻഡ് ചെയ്യുകയാണ് കോയമ്പത്തൂർ പോകുന്നത് നമ്മളൊന്ന് എക്സ്റ്റൻഡ് ചെയ്യുകയാണ് ഇല്ല പദ്ധതി ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ് അതേ അതേ അതേ നമ്മൾ നാളെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബുക്ക് ചെയ്തത് നാളേയ്ക്കാണ് ഞാനിന്നലെയാണ് വൈകിട്ട് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതെ നാളെ ഇല്ല നാളെ കുറച്ചു പ്രോഗ്രാമുള്ളതുകൊണ്ട് നാളെ നമ്മളത് മാറ്റി വെച്ചിരിക്കുകയ നാളെ പോകാൻ പറ്റില്ല അപ്പോൾ നമുക്കതൊന്ന് പേയ്മെൻറ് ചെയ്ത ആ ക്യാഷൊന്ന് നമുക്ക് റീഫണ്ട് ചെയ്തു തരണം അല്ല നമ്മൾ പിന്നീട് പിന്നീട് പോകാം പിന്നീട് ഞാൻ ബുക്ക് ചെയ്യാം നിലവിലിപ്പോൾ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് നാളത്തെ പരിപാടിയൊന്ന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതേ എട്ടാ മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് അതെ അതെ അതെ ആ നമ്മൾ നാളെയാണ് ബുക്ക് ചെയ്തത് അതിപ്പോൾ പറ്റില്ല ചേട്ടാ എനിക്ക് പറ്റാത്ത കാര്യമായതുകൊണ്ടാണ് ഞാൻ ഞാനത് അഡ്വാൻസ് നിങ്ങൾക്ക് പെയ്മെന്റ് ചെയ്തു തന്നു എനിക്കതിപ്പോൾ റീഫണ്ട് ചെയ്ത് തരണം അത് അതെങ്ങനെയായാലും കുഴപ്പമില്ല അക്കൌണ്ട് വഴിയോ അല്ലെങ്കിൽ പേടിഎം വഴിയോ അല്ലെങ്കിൽ ജിപേ വഴിയോ ആയാലും കുഴപ്പമില്ല ഉണ്ട് ഉണ്ട് ഉണ്ട് അക്കൌണ്ട് നമ്പറായിട്ടാണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങൾ ഫോൺപേ ഉണ്ട് എൻ്റെ ഇതിൽ ജിപേയും ഉണ്ട് ഇതിലേതാണ് സൗകര്യം നോക്കിയിട്ട് അതിലേക്ക് അയച്ചാൽ മതിയാകും അതേ അതേ ഇതേ നമ്പർ ഇന്നലെ അയിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു ടു സിക്സ് തുടങ്ങുന്ന ഒരു നമ്പർ ഞാനയിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് അയച്ചിട്ടുണ്ടായിരുന്നത് അതേ അതേ ഇന്നലെ ഒരു അഞ്ച് മണിയായി അഞ്ച് മണിക്കാണ് ഞാൻ പെയ്മെന്റ് ചെയ്തത് അഡ്വാൻസ് ഒരു അയ്യായിരം രൂപയാണ് ഞാൻ പെയ്മെന്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അതെ അതെ അതേ നമ്പറിലേക്ക് അയച്ചാലും മതിയാകും ആ അതേ ഉണ്ട് ഫോൺപേ ഉണ്ടതില് ഗൂഗിൾ പേ ഉണ്ട് ഈ രണ്ടും അതിലുണ്ട് അതെ അതെ അതെ അതെ അഡ്വാൻസ് ഇപ്പോൾ അയച്ചു തന്നാൽ കുറച്ചു സൗകര്യമായിരുന്നു ഇല്ല കുഴപ്പമില്ല അതിപ്പോൾ നമ്മൾക്ക് പെട്ടെന്നുള്ളൊരു അതായത് കാരണം നമ്മളത് ക്യാൻസൽ ചെയ്തതാണ് അതെ നാളെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ എന്തായാലും ഇത് അത്യാവശ്യം ആയതുകൊണ്ട് ഇതിപ്പോൾ അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് വിളിക്കാം വിളിക്കാം എന്തായാലും വിളിക്കാം ഇങ്ങനെ പിന്നീട് വിളിച്ച് ഒരു ദിവസം വിളിച്ചിട്ട് നമുക്ക് പോകാം ഞാൻ ബുക്ക് ചെയ്യാം ഇപ്പോൾ നിലവിൽ എന്തായാലും നമുക്കങ്ങോട്ട് പോകല് നടക്കില്ല അതുകൊണ്ടാണ് അതെ അതെ അതെ അതെ നിങ്ങൾ ഇതിലോട്ട് അയച്ചാൽ മതി ഈ നമ്പറിലോട്ട് ഇതിൽ ഫോൺപേ ഉണ്ടല്ലോ ഇതിലോട്ടുതന്നെ റീഫണ്ട് ചെയ്തുതന്നാൽ വളരെ സൗകര്യമായിരുന്നു ഇതിപ്പോൾ എങ്ങനെയാണ് ക്യാഷ് എങ്ങനെയാണ് നിങ്ങൾ റീഫണ്ട് ഞാൻ കൊടുത്തത് അയ്യായിരം തന്ന അത് മുഴുവനായിട്ട് റീഫണ്ട് ചെയ്യുക അങ്ങനെയാണോ ഓക്കെ ഓക്കെ ഓക്കെ ആ ആ ആ ഓക്കെ ഇപ്പോൾ ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എങ്ങനെയാണ് നോക്കിയിട്ട് അയച്ചാലും കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല ഓക്കെ ഓക്കെ ശരി ശരി കേട്ടോ വളരെ ഉപകാരം ഒന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ ഓക്കെ ശരി ശരി കേട്ടോ വളരെ ഉപകാരം ഓക്കെ